ഇപ്പോൾ എന്താ പറയുക വിദ്യാഭ്യാസം ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സഹായിക്കുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എന്താ പറയുക നല്ലൊരു ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക പുറമെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് അവരുടെ ലാങ്ക്വേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലേ പുറമെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒര് മെച്ചമോ നേട്ടമോ ഒക്കെ കൈവരിക്കാൻ കഴിയുള്ളു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടി എടുക്കണമെങ്കിൽ എന്താ പറയുക ഇന്നിപ്പോൾ വിദ്യാഭ്യാസം ആണ് മിനിമം യോഗ്യത വരുന്നത് കാരണം മിനിമം പത്താം ക്ലാസ്സ് വരെയെങ്കിലും പഠിച്ചവർക്കേ എന്താ പറയുക സർക്കാർ ജോലിവരെയൊക്കെ എന്താ പറയുക കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിനിമം പത്താം ക്ലാസ്സ് ഇല്ലാത്തവർക്കൊന്നും ഗവൺമെൻ്റ് ജോലി കിട്ടില്ല അങ്ങനെ ജോലിയൊക്കെ എന്താ പറയുക ഇപ്പോൾ കോളിഫിക്കേഷൻ അനുസരിച്ചാണ് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവല് വച്ചിട്ടാണ് എന്താ പറയുക ജോലിയൊക്കെ ഇപ്പോൾ ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് എന്തായാലും നഷ്ടപ്പെടുന്നതെന്നു വച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം തന്നെയാണ് കാരണം നല്ലൊരു ജോലിയോ കാര്യമോ ഇല്ലാണ്ട് എങ്ങനെയാണെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു കുടുംബം ഒന്നും മുൻപോട്ടു കൊണ്ടുപോവാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നേരിടേണ്ടി വരുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്